ആ നമ് നമ്മളുടെ ശക്തിയും ബലഹീനതയും നമ്മൾ തന്നെയാണ് എൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ ഒരു തീരുമാനം എടുത്താൽ അത് നടപ്പാക്കും ആരൊക്കെ നമ്മൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ എല്ലാവരും കളിയാക്കും ആളുകളുടെ മുമ്പിൽ വെച്ചാണെങ്കിലും നമ്മളെ എല്ലാവരും കളിയാക്കി ഒറ്റപ്പെടുത്തും പക്ഷെ അപ്പോൾ നമ്മൾ തീരുമാനിക്കും ആരൊക്കെ എതിർത്താലും ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും നമ്മൾ തളരില്ല ആ ഒരു ശക്തിയോടെ തന്നെ നമ്മൾ പിന്നെയും മുൻപോട്ട് വരും എന്നൊക്കെ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയാൽ ഇംഗ്ലീഷ് അറിയാത്ത പേരിലും വായിക്കാൻ അറിയാത്ത പേരിലും കണക്ക് കൂട്ടുന്ന കൂട്ടിയാൽ അത് അതിന് കുറിച്ച് എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ തന്നെ നമ്മുടെ ഇടയിൽ ഉള്ള ആളുകൾ നമ്മളെ ഒരുപാട് കളിയാക്കും അതൊക്കെ നമുക്ക് ഒരുപാട് ഹർട്ട് ചെയ്യുന്നതൊക്കെയാണ് അതുകൊണ്ടു തന്നെ നമ്മൾ അപ്പോൾ വിചാരിക്കും അവർ എന്തെങ്കിലും പറഞ്ഞോട്ടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് പറ്റുന്നില്ലേ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്